ഹലോ ചേട്ടാ ഒരോട്ടം വിളിക്കാൻ വേണ്ടിയാരുന്നേ ഞങ്ങൾക്ക് മണ്ണാറശാല വരെ പോവണമായിരുന്നു അമ്പലത്തിൽ അപ്പോൾ അതിൻ്റെ ചാർജ്ജ് എത്രയാവുമെന്നൊന്ന് പറയാമോ ആണല്ലേ ഞങ്ങൾ ഞങ്ങൾക്കൊരു രാവിലെയൊരു പത്ത് മണിയാകുമ്പോഴത്തേക്കും പോവണമായിരുന്നു ഞങ്ങൾക്ക് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഞങ്ങൾ കോട്ടയം ആയിരുന്നു സ്ഥലമേ ആ ഓക്കെ അപ്പം ഞങ്ങൾക്ക് അമ്പലത്തിൽ കേറിയതിന് ശേഷം ഞങ്ങൾക്ക് മൂന്നാലഞ്ച് സ്ഥലത്തിം സ്ഥലങ്ങളിലേക്കും കൂടെ പോകണമായിരുന്നു ആ അപ്പോൾ അതിന് എങ്ങനെയായിരിക്കും ചേട്ടനു വേറെ ഓട്ടം വല്ലോം വന്നെങ്കിൽ പിന്നെ ആണല്ലേ ആ ഞങ്ങളൊരു നാലഞ്ച് പേരുണ്ടായിരുന്നു അപ്പം അപ്പം അതിനനുസരിച്ചുള്ള വണ്ടി ഉണ്ടോ ആ ഞങ്ങൾക്ക് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് സ്ഥലങ്ങൾ കൂടൊക്കെ വിസിറ്റ് ചെയ്യണമായിരുന്നു പിന്നെ നല്ല നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡ്ഡ് കഴിക്കണമായിരുന്നു അപ്പം ആണല്ലേ ആ അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചേട്ടന് വല്ലതും അറിയാമോ ആണല്ലേ ആ അല്ല ഇരുപത്തിനാലാം തീയതി അതല്ലാതെ ചേട്ടന് വേറെ വല്ല ഓട്ടം ഉണ്ടോ ആണല്ലേ അപ്പം ഞങ്ങളുടെ കാര്യം അപ്പം ഞങ്ങളുടെ കാര്യം ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല കാരണം താമസിക്കുമോ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം തറവാട്ടിലൊക്കെ ഇങ്ങനെയൊന്ന് പോവണമായിരുന്നു അപ്പോൾ ആണല്ലേ അപ്പം ഞങ്ങളെ രാവിലെ ഇവിടെ വന്ന് കൂട്ടണമായിരുന്നു ആ ഞങ്ങളുടെ വീട് കോട്ടയം പൊൻകുന്നമെന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നെ